ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ നമ്മുടെ ജീവിതം ഈ സമൂഹത്തിൽ സുരക്ഷിതമായി കൊണ്ടു പോ മുന്നോട്ട് കൊണ്ടു പോകാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് വളരെയേറെ ആശങ്കാകുലരാണ് വര്ദ്ധിച്ചു വരുന്ന മോഷണങ്ങൾ ബാലപീഡനങ്ങൾ ലൈംഗിക അതിക്രമങ്ങൾ ഒരു തരത്തിലും മനുഷ്യന് പരസ്പരം വിശ്വസിക്കാനാകാത്ത അവസ്ഥ ഇതിനൊക്കെ ഒരു മാറ്റം വന്നേ മതിയാകൂ അതിന് ഏറ്റവും അത്യാവശ്യം മാറ്റം വരേണ്ടിയത് നമ്മുടെ നിയമ സംവിധാനത്തിനു തന്നെയാണ് നിയമവ്യവസ്ഥ കർശനമാണെങ്കിൽ ജനങ്ങൾക്ക് നിയമവ്യവസ്ഥയോട് കുറേ ഭയവും ബഹുമാനവും നിലനില്ക്കും സാമൂഹിക തിന്മകളായ മദ്യം മയക്കു മരുന്ന് ലഹരികൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പിടിച്ചാൽ തക്കതായ ശിക്ഷ കൊടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വീണ്ടും അത് ചെയ്യുവാനുള്ള പ്രവണത ആരെയും ഭയമില്ല എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ആരോട് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ആ അവസ്ഥ അതൊക്കെ ഞെട്ടിക്കുന്നതു തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു ഒന്നു രണ്ടു വർഷങ്ങളായിട്ട് നമ്മുടെ രാജ്യത്തു നടന്നു കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് പഠിച്ചാൽ ഇതെല്ലാം നിയമ വ്യവസ്ഥയുടെ അപര്യാപ്തത കൊണ്ടു വരുന്ന കുറ്റകൃത്യങ്ങളാണെന്ന് നമുക്ക് ബോധ്യമാകും സാമൂഹിക വിപത്തുകൾ സ്ത്രീധനം കൊടുക്കാത്തതു കൊണ്ടുള്ള കുറ്റങ്ങൾ അതുപോലെ തന്നെ മോഷണ ശ്രമങ്ങൾ ഇരുപത്തഞ്ച് കോടിയും മുപ്പത് കോടിയുമൊക്കെ ഒരു ജ്വലറിയൊക്കെ കുത്തിത്തുറന്നു കൊണ്ടു പോകുവാൻ ഒരു മടിയുമില്ലാത്ത ഒരു ജനത ലഹരിയുടെ ചിന്തിക്കാൻ പോലും ആകാത്ത രീതിയിലുള്ള കള്ളക്കടത്തുകൾ ഇവിടെ ഇന്ത്യയില് മാത്രമേ ഇത്രയും നിയമവ്യവസ്ഥയിൽ ഒരു കര്ക്കശ സ്വഭാവം ഇല്ലാത്ത ഒരു നിയമവ്യവസ്ഥ ഇന്ത്യയില് മാത്രമേ ഉള്ളൂ മറ്റേത് രാജ്യത്തു ചെന്നാലും അവിടുത്തെ പൗരന്മാർ പരസ്പരം വളരെ ബഹുമാനത്തോടും ആദരവോടു കൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുക എന്നാൽ ഇവിടെ എന്തിനും ഏതിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും നിസ്സാര സംഭവങ്ങൾക്കു പോലും കൊലപാതകരാകുകയും അതിൻ്റെ പേരിൽ കൊല്ലാൻ പോലും ജീവനെടുക്കാൻ പോലും മടിയില്ലാത്ത ഒരു ജനത വര്ദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതി വിശേഷം അഴിമതി അക്രമങ്ങൾ എല്ലാം നിരന്തരം ഓരോ ദിനം തോറും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഇതിൻ്റെ എല്ലാം ഇതിൻ്റെ എല്ലാം ഒരൂ നേ ഇതിൻ്റെ എല്ലാം കാരണം ഈ നമ്മുടെ നിയമ വ്യവസ്ഥ തന്നെയാണ് എന്തു ചെയ്താലും നിസ്സാരമായ കുറ്റം ശിക്ഷകൾ അതു പോലെ തന്നെ ഇവരെ ഏതു നിമിഷവും ഏതു സമയത്തും വേണമെങ്കിലും രക്ഷിക്കാൻ തക്ക രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ എന്തു തെറ്റു ചെയ്താലും രക്ഷപ്പെടുത്തുമെന്നുള്ള ആ തോന്നലുകൾ ഓരോ പാർട്ടിക്കാരും അവനവൻ്റെ പാർട്ടിക്കു വേണ്ടി പ്രവർത്തിക്കുന്നവരെ എന്തു വില കൊടുത്തും രക്ഷിച്ചു കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഈ ഭാരതത്തിലുള്ള ജീവിതം വളരെ ദുസ്സഹമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇതിന് എന്തായാലും ഒരു മാറ്റമുണ്ടാകണം നിയമം നല്ല രീതിയിൽ പുരസം സ്ഥാപിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നിയമത്തോട് ഭയമുള്ള ഒരു ജനത തീർച്ചയായിട്ടും നിയമം അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കും എന്തായിരുന്നാലും നിയമം മാറ്റിയേ മതിയാകൂ നിയമങ്ങളുടെ കുറവ് തെറ്റുകളുടെ എണ്ണവും ആക്കവും വര്ദ്ധിപ്പിക്കും ഇതു നമുക്ക് ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്തായാലും നിയമം മാറണം എന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം നിയമത്തിലൂടെ ഈ നിയമത്തിൻ്റെ പരിഷ്കാരത്തിലൂടെയും തക്കതായ ശിക്ഷകളിലൂടെ ഈ തെറ്റുകളിനെക്കുറിച്ച് മനുഷ്യൻ ബോധവാനാകുകയും അവൻ ലഭിക്കാൻ സാധ്യതയുള്ള ശിക്ഷയെക്കുറിച്ച് അവൻ ചിന്തിക്കുകയും അതു വഴി അവനതിൽ നിന്നും പിന്തിരിക്കുകയും ചെയ്യാൻ സാധ്യതകളുള്ളു എന്തായാലും ആസന്ന ഭാവിയിൽ നിയമങ്ങൾ മാറ്റുക തന്നെ ചെയ്യേണ്ടി വരും ഓരോ തിന്മയിലേക്കും ഓരോ കുറ്റകൃത്യങ്ങളിലേക്കും ചാടി വീഴുന്ന യുവതലമുറയെ കണ്ടിട്ട് സത്യത്തിൽ നമ്മളെല്ലാം വളരെ ഉത്കണ്ഠാകുലരും ഭയബഹുലരുമാണ് ഒരു കാരണവശാലും നമുക്ക് നേരെയാക്കാൻ പ സാധിക്കാത്ത വിധം നമ്മുടെ യുവത്വം വഴിമാറി പോയിരിക്കുന്നു അംഗീകരിക്കാനാകാത്ത രീതിയിലുള്ള ഈ കുറ്റകൃത്യങ്ങൾ നീതീകരിക്കാനാകാത്ത രീതിയിലുള്ള ശിക്ഷാവിധികൾ ഇതു രണ്ടിനും മാറ്റം വന്നേ മതിയാകൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം